ഞാൻ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം മുന്നെ ആണ് ഞാനൊരു ആദ്യമായിട്ട് ഒരു മലകയറ്റത്തിന് പോയത് അത് വേറെ എവിടെയുമല്ല മരുത്വാ മലയിലായിരുന്നു ഈ മരുത്വാ മല സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലാണ് നമ്മുടെ വീട്ടിൽ നിന്നും ഒരുപാട് ദൂരം പോകണം കന്യാകുമാരിയിലേക്ക് അങ്ങനെ ഒരു നീണ്ട മൂന്ന് നാല് മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞാൻ മരുത്വാ മലയുടെ താഴ്വരയിലെത്തി നല്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മരുത്വാ മല എന്നു പറയുന്നത് ഒരുപാട് നേരിയ വഴികളും അതുപോലെ തന്നെ കുന്നു പോലുള്ള പാറകളുമൊക്കെ കയറിയാണ് ഞാൻ മരുത്വാ മല കയറിയത് ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂറെടുത്ത് ആ ഒരു മല ഞാൻ കയറാൻ ആദ്യമൊക്കെ കയറിയപ്പോൾ എനിക്ക് ഒരു കാലു വേദനയോ അല്ലെങ്കിൽ ക്ഷീണമോ ഒന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ കൂടുതൽ ദുർഘടമായിട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നപ്പോൾ ഒരു ചെറിയ തോതിൽ കാലു വേദനയും അതുപോലെ തന്നെ കൈ വേദനയും മേലു വേദനയും ഒക്കെ തോന്നി ഞാൻ മല കയറിയത് രണ്ടു ബോട്ടിൽ വെള്ളവും രണ്ട് ഏത്തപ്പഴവും കൊണ്ടായിരുന്നു ബാക്കിയുള്ളവരും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരു കുപ്പി വെള്ളം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ തീർന്നു അത്രയ്ക്ക് വെയിലും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ല ക്ഷീണം തോന്നിക്കുന്ന ഒരു മല കയറ്റമായിരുന്നു അത് എൻ്റെ കൂടെ വന്നത് എൻ്റെ ഫ്രെൻ്റ് സായിരുന്നു കുത്തനെ നിൽക്കുന്ന രണ്ട് മൂന്ന് പാറകളൊക്കെ ചാടിയും തൂങ്ങി ഒക്കെ കടന്നപ്പോൾ എൻ്റെ ശരീരമാസകലം നല്ലവേദന അനുഭവപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൂന്നു നാലിടത്ത് നിർത്തി റസ്റ്റ് എടുത്തു റസ്റ്റ് എടുത്തത്തിന് ശേഷമാണ് വീണ്ടും മലകയറ്റം തുടങ്ങിയത് ഈ റസ്റ്റ് എടുക്കുന്ന വേളയിൽ നമ്മൾ കൊണ്ടുപോയ ഭക്ഷണവും വെള്ളവും എല്ലാം കഴിച്ചും കുടിച്ചും ഒക്കെ ഇരുന്നു വെള്ളം ഏകദേശം ഒരു രണ്ട് മണിക്കൂറായപ്പോഴത്തേക്കും കൈയ്യിലുള്ള വെള്ളമെല്ലാം തീർന്നു പിന്നെ ദാഹിച്ച് ദാഹിച്ചാണ് ബാക്കിയുള്ള മരുത്വാ മല കയറിയത് ആ മലയുടെ മുകളിലെത്തിയപ്പോൾ ആണ് വളരെ നല്ല ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കാണുന്നത് നമ്മുടെ കന്യാകുമാരി ഡിസ്ട്രിക്ടിൻ്റെ ഏകദേശം ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ എന്നു വേണമെങ്കിൽ നമുക്ക് പറയാം അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അവിടെ ഒരുപാട് മരങ്ങൾ വിൻഡ്മില്ല് നല്ല കാറ്റുമുണ്ടായിരുന്നു അവിടെ അവിടെ തന്നെ കുഞ്ഞു ഒരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ചെന്ന് നമ്മൾ തൊഴുതു അവിടെ ഏത് പ്രതിഷ്ഠ എന്നോ ഒന്നും നമുക്കറിയില്ല എന്തായാലും നമ്മൾ ചെന്ന് തൊഴുതു അവിടെ ചെന്നപ്പോൾ ഒരു ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ ചെന്നപ്പോഴുള്ള ഒരു മനസ്സിന് ഒരു സംതൃപ്തി എന്ന നിലയിൽ നമ്മൾ അവിടെ ചെന്ന് തൊഴുതു അതു പോലെ തന്നെ അവിടെ ഒരു കുഞ്ഞു ഗുഹ ഉണ്ടായിരുന്നു അവിടെയാണ് പണ്ട് ശ്രീനാരായണ ഗുരു തപസ്സിരുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെപ്പോയി കുറച്ചു നേരം ഇരുന്നു റസ്റ്റ് എടുത്തു അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസ് എടുത്തു എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ടു തന്നെ ഇറങ്ങി കയറുന്ന അത്രയും പാടില്ലായിരുന്നു ഇറങ്ങിയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു എനിക്കത് അങ്ങനെ ആദ്യത്തെ എൻ്റെ മലകയറ്റ കഥ ഇതാണ് പിന്നെ ഒരുപാട് പേടി അതിൽ നിന്നും മലകയറ്റമെന്ന് പറയുന്നത് എനിക്ക് ആദ്യമേ നല്ല പേടിയുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ അത് അതിനു ശേഷം എനിക്ക് നല്ല എവിടെ നിന്നോ ഒരു നല്ല ധൈര്യം വന്നു തുടങ്ങി